മൗത്ത് ടു മൗത്ത്സ് ഉള്ള പരസ്യമാണ് പരസ്യത്തിൽ വച്ച് ഏറ്റവും വലിയ പരസ്യം അങ്ങനെ നല്ലത് എന്ന് പറയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ടുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ആണ് എങ്കിൽ അതിനേക്കാൾ വലിയൊരു പരസ്യമില്ല പിന്നെ പരസ്യം ചെയ്യാൻ നമുക്ക് മൊബൈലുകൾ വാട്സപ്പുകൾ ഗ്രൂപ്പുകൾ ചെറിയ ചെറിയ ബോഡുകൾ വഴിയരികിൽ അങ്ങനെയുള്ള മറ്റുള്ള ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രീതിയിലുള്ള പരസ്യ രീതിയാണ് നല്ലത് അത് ചാനലുകളിൽ കൂടിയാണെങ്കിലും ശരി പത്രത്തിൽ കൂടിയാണെങ്കിലും ശരി ചെറിയ ബിറ്റ് നോട്ടീസിൽ കൂടി ഓരോ വീടുകളിലും നേരിട്ട് കൊണ്ട് കൊടുത്തിട്ടാണെങ്കിലും ശരി ഇതിലൊക്കെ മെയ്നായിട്ട് ആ പ്രൊഡക്ടിൻ്റെ ഗുണം ഒരാളുടെ ചുണ്ടിൽ നിന്നും മറ്റൊരാളുടെ ചുണ്ടിലേക്ക് പകരുമ്പോഴാണ് അത് നല്ല പരസ്യമായിട്ട് ചിലവില്ലാത്ത പരസ്യമായിട്ട് മാറുമ്പോഴാണ് അത് ശക്തിയാർജ്ജിക്കുന്നത് അതിന് പരസ്യ പലയേക്കാൾ അല്ലെങ്കിൽ ബോഡുകളേക്കാൾ അതല്ലെങ്കിൽ അനൗൺസ്മെന്റിനേക്കാൾ അല്ലെങ്കിൽ സിനിമ ഇതിൽക്കൂടിയുള്ള പരസ്യങ്ങളേക്കാൾ പത്രത്തിൽ കൂടിയിട്ടുള്ള പരസ്യം ചാനലിൽ കൂടിയിട്ടുള്ള പരസ്യം ഈ പരസ്യങ്ങളെക്കാളൊക്കെ നല്ലത് നല്ല പ്രൊഡക്ടുണ്ടാക്കി നല്ലത് എന്ന് പറയിക്കാൻ സ്വാധീനം ചെലുത്താൻ മാർക്കറ്റിൽ സ്വാധീനം ആർജ്ജിക്കാനുള്ള കഴിവ് ഉണ്ടാക്കുക ആദ്യം എന്നുള്ളതാണ് ഏതൊരു പ്രൊഡക്ടിന്റേയും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിന്റേയും വിജയം